പരമ്പരാഗത നൃത്ത രൂപങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിന് പ്രാധാന്യമുണ്ട് കാരണം ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നും അത് പരമ്പരാഗത കലാരൂപങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു ഒരു പരമ്പരാഗത അത് ഉദാഹരണത്തിനായിട്ട് പറയണത് നാടോടി നൃത്തം അതുപോലെ തന്നെ ട്രൈബൽസിനെ ഡാൻസ് അതൊക്കെ ഒരു സംസ്കാരത്തെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ഹെല്പ്ഫുള്ളാണ് ഇപ്പോൾ ഇതിനൊരു ഇവൻ്റ് ഇവൻ്റുപോലും വെച്ചാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻ്റിൻ്റെ ഓർ സെൻട്രൽ ഗവൺമെൻ്റ് ഏതെങ്കിലും ഒരു ഇവെൻ്റിനുപോലും തന്നെ ഈ നൃത്ത രൂപങ്ങളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഞാൻ ഒരു ടി വിയിൽ ഒരാളെ

ഒരു പ്രധാന ഷേയ്ക്കെന്നു പറയാം അറബ്യൻ ഷേക്കിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതായത് സീകരിച്ചത് ഒരു നൃത്തം ഇന്ത്യയിലെ സംസ്കാരത്തിന് ഉതകുന്നരത്തിലുള്ള നൃത്തരൂപം കൊണ്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെൻ്റ് ഇതിലേക്ക് കൊണ്ടുവന്നത് മീൻസ് ഇൻഫോഡൻ അവരെ ഇതിലേക്ക് സ്വാഗതം ചെയ്ത് ഇത് കൂടുതലും തന്നെ അവരെ എന്താ പറയുക ഇൻഫ്ലൂൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു നല്ല പരമ്പരാഗത നർത്തനാകാൻ വേണ്ടത് അത്യാവശ്യ ഗുണണങ്ങൾ എന്നു പറയുമ്പോൾ ആ നൃത്തത്തിൻ്റെ ഒരു മുൻ തലമുറയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനും മുൻപുള്ള തലമുറകൾക്കുപോലും അതുപോലെ ഇൻട്രസ്റ്റ് കാണും അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ ചിലപ്പം ആ കലാരൂപം ഉണ്ടായിരിക്കാം അപ്പം അതൊക്കെയാണ് വേണ്ടത് പഴയ സംസ്കാരത്തെ വളർത്താനൊക്ക അവരതിന് ഹെൽപ്പ്ഫുള്ള് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ